എനിക്ക് ആ പ്രൊഡക്റ്റിനെ പറ്റി പറയാനുള്ള നെഗറ്റീവ് എക്സ്പീരിയൻസ് എന്താണെന്ന് പറഞ്ഞാൽ അത് വളരെ മോശം പ്രൊഡക്റ്റായിരുന്നു അത് ഇരുപത്തിനാല് മണിക്കൂർ സ്കിന്നിൽ നിൽക്കും നല്ല സ്കിൻ റേഡിയേഷൻ റേഡിയൻസ് ഒക്കെ തരും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അത് വാങ്ങിച്ചത് പക്ഷെ അത് സ് അങ്ങനത്തെ സോഫ്റ്റ് ക്രീമോ മോയ്സ്റ്ററൈയ്സ് ചെയ്യുന്നതോ ഒന്നും ആയിരുന്നില്ല അത് ഇടുമ്പോൾ തന്നെ നമുക്ക് മുഖത്ത് ആ ബുദ്ധിമുട്ട് അറിയാൻ പറ്റും അത് ഉപയോഗിക്കാൻ തന്നെ നമുക്ക് തോന്നത്തില്ല അത്രക്ക് മോശപ്പെട്ട പ്രൊഡക്റ്റായിരുന്നു അതൊരു ഫ്രൂട്ട് ബേയ്സാണെന്നാണ് പറഞ്ഞത് പക്ഷെ അങ്ങനെ ഫ്രൂട്ട്സിൻ്റെ മണമോ അങ്ങനത്തെ ഒരും ഒന്നും അതിന് ഇല്ലായിരുന്നു പിന്നെ അത് യൂ വി പ്രൊട്ടക്ഷൻ തരും എസ് പി എഫ് ഒക്കെ ഉള്ള പ്രൊഡക്റ്റാണെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ അതിനും അങ്ങനത്തെ ക്വാളിറ്റീസ് ഇല്ലായിരുന്നു നമ്മൾ വെറുതെ പൈസ കളഞ്ഞതാണ് അതിൽ അപ്പം അവരുടെ റിവ്യൂ ഒക്കെ കണ്ടിട്ട് വളരെ നല്ല പ്രൊഡക്റ്റാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ വാങ്ങിച്ചത് പക്ഷെ അങ്ങനെ നല്ല പ്രൊഡക്റ്റേ അല്ലായിരുന്നു അത് വാങ്ങിച്ചതു കൊണ്ട് പൈസ നഷ്ടം അല്ലാതെ നമുക്ക് വേറെ ഒരു നല്ല കാര്യവും അതിനകത്ത് നിന്ന് കിട്ടിയിട്ടില്ല